ഹാലോ രേണു ആണോ എനിക്ക് ഈ പ്രാവശ്യത്തെ ഈ വര്ഷത്തെ ബോണസ് കിട്ടിയായിരുന്നു അതെനിക്ക് എന് പി എസ് അക്കൗണ്ടിലോട്ടൊന്നു രേണു എന് പി എസ് അക്കൗണ്ടിലേക്കല്ലേ ഇട്ടത് അതിന് എന്തൊക്കെയായിരുന്നു അതിന്റെ ഗുണങ്ങള് എന്തൊക്കെയായിരുന്നു അതൊക്കെ ഒന്ന് അറിയാന്വേണ്ടിയാണ് ഞാന് ഇപ്പം വിളിച്ചത് അതൊന്നു എനിക്ക് മെസ്സേജയച്ച് പറഞ്ഞുതരാം ഒന്ന് മെസ്സേജ് വിട്ടേക്കണേ എനിക്കതങ്ങാ ചെറിയ ശതമാനം അങ്ങോട്ട് നിക്ഷേപിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോള് അതിന്റെ വിവരം എനിക്കൊന്നിങ്ങോട്ട് മെസ്സേജ് വിട്ട് തരണം കേട്ടോ ഓക്കേ